ഇത് ഡോക്ടർ ആദിത്യയല്ലെ ആ സാറെ എൻ്റെ പേര് അഭിനന്ദ് ആണ് ആ സാറെ നമ്മുടെ സൈക്കാട്രീല് സൈക്കാട്രിസ്റ്റ് അല്ലേ ആ സാറെ എനിക്ക് ഈ അടുത്തായിട്ട് എന്താ അറിയില്ല ഒരൂ പേടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പളാണ് വെറുതെ ഇരിക്കുമ്പോൾ ഞാനിപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ വരില്ല പക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കുറേ ഓവർതിങ്ക് ചെയ്ത് പാനിക്ക് അറ്റാക്ക് പോലെയൊക്കെ ചെറുതായിട്ട് വരാറുണ്ട് പാനിക്ക് അറ്റാക്ക് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ആ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് ഞാൻ എച്ച് ആർലാണ് ഓവർതിങ്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ജോബിന് കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരൂ ബോസ്ണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്ട്രെസ്സ് ഞങ്ങളിലാണ് എൽപ്പിക്കുക അപ്പോൾ അതൊക്കെ കൊണ്ട് വന്നിട്ട് വീട്ടിൽ ജോലി കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ അതെനിക്ക് എഫക്റ്റ് ചെയ്യും അത് എന്താ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഇങ്ങനെ പെട്ടെന്ന് ആ രാത്രി ഉറങ്ങുമ്പോൾ ഉറങ്ങാനൊക്കെ ഭയങ്കര ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരാറുണ്ട് അതും ആ അത് തന്നെ എൻ്റെ വീട് കൊച്ചി അല്ല അല്ല മാരീഡ് അല്ല ഓക്കെ സാറെ ഇപ്പോൾ ഇനി മെഡിക്കേഷൻസ് എന്തെങ്കിലും വേണ്ടി വരുമോ അതോ സാറിനെ കണ്ടിട്ട് മതിയോ ഓക്കെ സാർനെ ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാർനെ വിളിക്കാമല്ലോ അല്ലേ

ഓക്കെ സാറെ ഞാൻ ഇപ്പം അത് ഞാൻ നാളെ എന്തെങ്കിലും അല്ലെങ്കിൽ നാളെ ഇത് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം ശ്രമിച്ച് നോക്കാം ലോക്കെ സാറെ ഓക്കെ ആണല്ലേ ഓക്കെ സാറിൻ്റെ ലൊക്കേഷൻ എവിടെയാ കറക്റ്റ് ആയിട്ട് ആ വാട്സപ്പ് ഉണ്ട് ഓക്കെ ഓക്കെ ആ സാറിൻ്റെ റേയ്റ്റ് എങ്ങനെയൊക്കെയാണ് എനിക്ക്

ഓക്കെ ഓക്കെ ആ ശരി സാറെ ഒരു വീക്ക് ആയിട്ട് ഞാനത് എന്തായാലും സാർന് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം ആ ശരി ഓക്കെ ഞാനത് പറയാം ഓക്കെ ഓക്കെ സർ